ഈ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ ഞാനാലോചിക്കുന്ന സംഭവം ഞാനെ ഇത്ര വണ്ണം കൂടിയ വ്യക്തിയാണ് നല്ല വണ്ണമുണ്ട് എനിക്ക് ഫോറെക്സലെ ചേരത്തുള്ളു മെയിൻ കട കുഴഞ്ഞ് ഞങ്ങളുടെ പത്തനംതിട്ട കോഴഞ്ചേരി മേലുകരയാണ് ഞങ്ങളുടെ എന്റെ സ്ഥലം അവിടെ നിന്ന് ഈ ഡ്രെസ്സ് വാങ്ങാൻ എനിക്കാകെ ഡ്രെസ്സ് കിട്ടുന്ന സെവൻസ് എന്നൊരു കടയുണ്ട് കോഴഞ്ചേരിയിൽ അവിടയേ കിട്ടത്തുള്ളു പല സമയത്തും ഞാൻ പോയിട്ട് എനിക്കിത് എനിക്ക് വേണ്ട കളറ് എനിക്കവിടെ നിന്ന് കിട്ടത്തില്ല അപ്പോൾ ഈ വേണ്ട കളറ് പറഞ്ഞ് കളറ് പറഞ്ഞാലും ഇവർ പത്തു മിനിട്ട് വെയ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ അടുത്ത കടയിൽ നിന്നെടുക്കാൻ പോവും ഇവരുടെ എന്നൊരു ഷോപ്പുണ്ട് അല്ലെങ്കിൽ ഇത് ഗോഡൗണുണ്ട് അവിടെയെടുക്കാൻ പോവും അവടെപ്പോയി എടുത്ത് നമ്മൾ ഈ പറയുന്ന കളറ് നമുക്ക് കിട്ടത്തില്ല അവിടെ വെച്ച് പിന്നെ ഞാൻ കിടന്ന് ബഹളമാവും ചിലത് നിങ്ങളെ നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടല്ലേ വന്നത് നിങ്ങൾ പറഞ്ഞിട്ടല്ലെ ഞാൻ കടയിൽക്കയറിയത് എന്നൊക്കെ പറഞ്ഞ് അവിടെ പല സമയത്തും ഞാനവിടെക്കിടന്ന് വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളറ് ഒരു ഷർട്ട് അല്ലെങ്കിൽ ഈ ബ്രാൻ്റഡ് ഷർട്ടെന്ന് ഞാൻ പറയത്തില്ല ഈ ബ്രാൻ്റല്ല എനിക്ക് ഫോർ എക്സ്സ് വേണം അതെനിക്കാകെ നല്ല ബ്രാൻ്റ് കിട്ടണമെങ്കിൽ ഞാൻ മഹാലക്ഷ്മി അല്ലെങ്കിൽ മറ്റേ ഈ എന്തായിരുന്നു മഹാലക്ഷ്മിയുണ്ട് പിന്നേ ഒരു തുണിക്കടയുണ്ട് മറന്നുപോയി ആ എന്താ അയ്യൊ ആ ആ എന്തോ ഒരു കട എസ്സെട്ട്ര വിട്ടേക്ക് അങ്ങനെ കടയിൽപ്പോവും മഹാലക്ഷ്മിയിൽച്ചെന്നാൽ നല്ല ബ്രാൻ്റഡ് ഷർട്ടും നല്ല അത് പറയുന്ന കളറും കിട്ടും എല്ലാം കിട്ടും ഒന്നും വേണ്ട ഈ എന്താ എസ്സെമ്മിലൊരു കട ഞങ്ങളുടെ ഒരു കൂട്ടുകാരന്റെ കല്ല്യാണത്തിന് എസ്സെമ്മിൽപ്പോയിട്ട് ഒരു എല്ലാം അടക്കമൊരു ചുവന്ന കളറ് ജുബ്ബ അത് കുർത്തയില്ല ആ സമയത്ത് കുർത്തയായിരുന്നു ആ സമയത്ത് കുർത്ത വാങ്ങാൻ വേണ്ടി ഞങ്ങളൊരു പതിനൊന്ന് പേര് പോയി ഇവർക്കെല്ലാം കിട്ടി എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഇട്ട ഷർട്ട് മൊത്തം ഇട്ടു ഞാൻ കീറി അവരറിയാതെ തന്നെ മടക്കിയവിടെ വച്ചു പിന്നേയും ഇട്ടു അതും കീറി കാരണം ഈ വണ്ണക്കൂടുതൽ കാരണം കീറുകയായിരുന്നു അതിട്ട് പിന്നെ അതും കീറി ഇത് ഈ മൂന്ന് ഷർട്ടും കീറിയിട്ടാണ് ഞാനവിടെ നിന്നിറങ്ങിയിട്ട് സെവൻസ്സ് നമ്മുടെ കോഴഞ്ചേരി വന്നിട്ട് അവിടെ നിന്നത് കറക്റ്റ് കിട്ടി കുർത്ത സെവൻസിൽത്തന്നെ കിട്ടി പഴയവർ ഈ നമ്മൾ ഈ വിളിച്ച് പറഞ്ഞിട്ട് അകത്ത് കയറ്റിയിട്ട് ഇല്ലെന്ന് പറയുമ്പോൾ ഉള്ളൊരു വിഷമം അത് ഞങ്ങൾ അപ്പുറത്ത് കടയിൽപ്പോയിട്ട് നോക്കട്ടെ ഗോഡൗണിൽപ്പോയി എടുത്തുകൊണ്ട് വരാം

പിന്നെ ആ പാൻ്റ് വല്ലപ്പോഴുമിടുന്നത് ഈ മംഗലാപുരം അങ്ങനെയൊരു ട്രിപ്പൊക്കെ പോവുമ്പോഴാണ് ഇടുന്നത് അല്ലെങ്കിൽ ഒരു സംഭവം ഞാനിത് ഉപയോഗിക്കത്തേയില്ല അപ്പം ഈ കടകളുടെ സംഭവം ഈ ഡ്രസ്സുകളുടെ സംഭവം അവിടുത്തെ ആൾക്കാർ അതായത് ആ ജോലിയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ നമ്മളെ വിളിച്ച് അല്ലെങ്കിൽ അവരുടെ ഒടമസ്ഥൻ നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടാണോ കടയിൽപ്പോന്നത് ഇതാണ്ടേ ഈ കളറ് ഷർട്ടൊന്ന് ഉണ്ട് വരാൻ പറയും ചെന്നു കയറുമ്പം പറയും അപ്പുറത്ത് ഗോഡൗണിൽ നോക്കട്ടെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാമെന്ന് ഏതാണ് മനസ്സിലായല്ലൊ അത് അപ്പം അതവിടെച്ചെന്നിട്ട് ഇല്ലെന്ന് പറയുമ്പോൾ ഉള്ളൊരു ഇതുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽക്കിട്ടുന്നൊരു ഷർട്ടെടുത്ത് ഇങ്ങ് പോരുകയാണ് അപ്പം പറയേണ്ട രീതിയെന്ന് പറഞ്ഞാൽ അവർ അവർ ന്യായമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ചേട്ടാ വാ വന്നൊ ചേട്ടാ ഇതില്ല അല്ലെങ്കിൽ മോനെ ഇതില്ല ഈ ഇത്ര കളർ ഷർട്ട് ഇവിടെയില്ലായെന്ന് പറഞ്ഞെങ്കിൽ നമ്മളത്രയും പെട്രോളും മുടക്കി വീട്ടിൽനിന്നിറങ്ങി എന്തുവാണ് അമ്പത് രൂപയ്ക്ക് പെട്രോളുമടിച്ച് കോഴഞ്ചേരി പോയിട്ട് ഈ ഷർട്ടും നോക്കാൻ പോയിട്ട് ഇല്ലെന്ന് പറയുമ്പോഴുള്ള അവസ്ഥ എന്തുവാണ് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് മറ്റേ ഇത് മഹാലക്ഷ്മിയിലെ ഞാനിപ്പോഴും പറയണ നല്ല ഇവിടെ നല്ല റേറ്റാണ് സംഭവം അപ്പം അങ്ങനെയൊരു സംഭവവമെനിക്ക് പറയാനുള്ളു വേറെയൊന്നും പറയാനില്ല